കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലകളിലൊന്നായ പാലക്കാട് കാലാവസ്ഥയെ വളരെയധികം സ്വാധീനിക്കുന്നൊരു ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും ചൂട് കൂടുതൽ അനുഭവപ്പെടുന്ന രണ്ട് സ്ഥലങ്ങളാണ് പുനലൂരും ചിറ്റൂരും ആ ഈ ചിറ്റൂര് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ലയേതെന്നു ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരമേ ഉള്ളു അത് പാലക്കാടാണ് കാഠിന്യമേറിയ ചൂടും അതുപോലെത്തന്നെ കാഠിന്യമേറിയ വേനലിൻ്റെ ദൈർഘ്യവുമാണ് മറ്റു ജില്ലകളിൽ നിന്ന് പാലക്കാടിനെ വ്യത്യസ്തമാക്കുന്നത് വെള്ളപ്പൊക്കവും ഉരുൾ പൊട്ടലും പോലുള്ള ദുർഘടമായിട്ടുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ പാലക്കാട് ജില്ലയിൽ ഇല്ല എന്നതും മറ്റൊരു സവിശേഷതയാണ് നീണ്ടു നിൽക്കുന്ന മഞ്ഞു കാലവും പാലക്കാടിലില്ല എന്നാൽ ദൈർഘ്യമേറിയ ചൂട് അതുപോലെത്തന്നെ വരൾച്ച ഇതെല്ലാം പാലക്കാട് ജില്ലയെ മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു അനേകം ഡാമുകളും നദികളും ഉണ്ടെങ്കിൽ കൂടി കാഠിന്യമേറിയ ചൂടെല്ലാം ഇതിനെ നിഷ്പ്രഭമാക്കുകയാണ് പതിവ്